പ്രകൃതി സൗന്ദര്യത്തിന് സവിശേഷ പ്രസിദ്ധി നേടിയ സ്ഥലമെന്നു പറയുമ്പോൾ ധാരാളം സ്ഥലങ്ങൾ തൃശ്ശൂർ ഉണ്ട് അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ട സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ചാലക്കുടി അതായത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഭാഗത്തുള്ള എന്താ പറയുക സ്ഥലത്താണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അത്രയും വെള്ളം വഹിച്ചു കൊണ്ടാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെ വെള്ളം വന്നു എത്തിച്ചേരുന്നത് കണ്ണിന് വളരെയധികം കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ആ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇത് വരണ്ട കാലാവസ്ഥയിൽ പോലും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും അതിന്റെ ഒരു ഭംഗി പല സിനിമകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത്രയും നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയായിക്കോട്ടേ അതും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളതാണ് ആനയിറങ്ങുന്നതും പുലിയിറങ്ങുന്നതുമായിട്ടുള്ള വഴിയാണ് അതായത് ഒരു കാനന മേഖല വനമേഖലയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴിയെന്നു പറയുന്നത് അതുപോലെ തന്നെ തടാകങ്ങളായിട്ടും നദികളായിട്ടും വയലുകളായിട്ടൊക്കെ ധാരാളം സ്ഥലങ്ങൾ തൃശ്ശൂർ ഉണ്ട് ഇപ്പോൾ നദികളായിട്ടാണേ ചേറ്റുവാ പുഴ അവിടെ ഈ പറഞ്ഞ പോലെ കണ്ടല് കാടുകള് കൊണ്ടും അതുപോലെ തന്നെ ബീച്ചുകളായിട്ടും കടലായിട്ടും എല്ലാം വളരെ പ്രകൃതിരമണീയമായിട്ടുള്ള സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്